ഹലോ ഹലോ ഡോക്ടറല്ലെ ഹലോ ഹലോ ഹലോ ഡോക്ടറല്ലെ ആ എനിക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി ആ വല്ലാ വല്ലാണ്ടൊരു ചുമയാ ആ ആ ചെറുതായിട്ട് മഴ നനഞ്ഞായിരുന്നു പിന്നെ ഇന്നലെ ഒന്ന് വെള്ളം എന്താ പറയുക പുഴയിലൊക്കെ ഒന്ന് പോയി കുളിച്ചായിരുന്നു

ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല വല്ലാണ്ട് എന്താ പറയുക ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ആ അത് ഇന്നലെ ഇന്നലെ തൊട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് രാത്രി ഒന്നും ഭയങ്കര നിൽക്കാൻ പറ്റാണ്ടായി ആ പനിച്ചിട്ട് അത് ഇന്നലെ വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ആ വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് സമയം വൈകിപ്പോയത് അതാ ഞാൻ ഇപ്പോൾ വന്നത് ഇല്ല മാറ്റമൊന്നുമില്ല ഇപ്പോഴും ഭയങ്കര പനിയാണ് ആ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇടയ്ക്ക് വായയ്ക്ക് ഒരു കയ്പ്പാ ആ

രാവിലെ വന്നിട്ടാ എന്തെങ്കിലും ചെക്ക് ചെക്ക് അപ്പ് എന്തേലും എടുക്കണോ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാ

ആ അതെ അതെ ആ പത്ത് മണി ആ ആണോ ഓക്കെ ഓക്കെ ഇവിടെത്തന്നെ വന്നാൽ മതിയല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം ഡോക്ടർ എത്ര മണി തൊട്ടാ നോക്കുന്നത് ടോക്കൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആയില്ലേ ആ ഓക്കെ ഓക്കെ പിന്നേ ആ ഈ പാരസെറ്റാമോള് മാത്രം കുടിച്ചാൽ മതി വോമിറ്റിങ്ങിന്റെ എനിക്ക് വല്ലാണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മരുന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ ആ അങ്ങനെ ഉണ്ടല്ലെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ നാളെ രാവിലെ ഞാൻ വന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ആ ഓക്കെ ആ ഓക്കെ ഡോക്ടർ ഓക്കെ ഓക്കെ ഓക്കെ ശരി